നൃത്തം കളിക്കുമ്പോൾ പിന്നെ അത് പ്രേക്ഷകർക്ക് എന്താണ് സന്തോഷമുള്ളതായിട്ട് തോന്നുന്നത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നൃത്തം കളിക്കുന്നവർ എന്താണ് പോസറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് സോ അതെന്താണ് ഓടിയൻസിൻ്റെ കയ്യിലേക്കും ആ ഒരു പോസിറ്റീവ് എനർജി എത്തുന്നതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഡാൻസ് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്നു വച്ചാൽ അവരും മെൻ്റലി അവർ ഫ്രീ ആവുകയാണ് അതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് അവർക്കും സന്തോഷം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക് പറയാം ഡാൻസ് കളിക്കുമ്പോൾ എന്താണ് പോസിറ്റീവ് എനർജി ആണ് മൊത്തം സ്പ്രെഡ് ആകുന്നത് അതാണ് എന്താണ് ഡാൻസിന് പ്രേക്ഷകരുടെ ഇടയിലൊരു എന്താണ് ശക്തമായിട്ടുള്ളൊരു അവരെ എന്താണ് അവർക്കൊരു മെൻ്റലി സന്തോഷം നല്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുകൊണ്ടാണ്